ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യങ്ങളും അവസരങ്ങളും കാര്യങ്ങളും ഒന്നും ലഭിക്കുന്നില്ല അതിനു പ്രധാനമായിട്ടുള്ള വസ്തുതകൾ മറ്റ് കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒക്കെ കലകൾക്കും മറ്റും കാര്യങ്ങൾക്കും പ്രാധാന്യം കിട്ടിയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നീട് അതിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങളൊന്നും മാറ്റങ്ങൾ സംഭവങ്ങൾ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇന്ത്യൻ കൺസെപ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ സങ്കല്പത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യവും അവസരങ്ങളും നൽകുന്നില്ല എന്ന് പറയുന്നതിന് കാരണം ഇന്ത്യയിൽ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതു തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം ഈ അസമത്വങ്ങളും മറ്റു കാര്യങ്ങളും നിലനിൽക്കുന്ന പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതകളാണ് പണം പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി കലാകാരന്മാർക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല പണമുള്ളതിൻ്റെ പേരിൽ അനവധി കലാകാരന്മാർ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട് അതാണ് ഇത് രണ്ടും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം ഇതിലേക്ക് എടു എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അനവധി സിനിമ നടന്മാർ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു പഴയകാല ചിന്തകളിലേക്ക് രീതികളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഈ നസീർ അതുപോലെ തന്നെ പ്രേംനസീർ ജയൻ പിന്നെ നമ്മൾ പറഞ്ഞ ഈ നമ്മുടെ അമിതാഭ് ബച്ചൻ ഇങ്ങനെയുള്ള നടന്മാരൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം ഈ നടന്മാരൊക്കെ ഉയർന്നു വന്നതെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കഴിവുകളുടെ പേരിൽ ഉയർന്നു വന്ന നടന്മാരുണ്ട് ചിലർ കഴിവില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രി ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അതൊരു കല കലയുടെ ഒരു ഭാഗമാണല്ലോ അപ്പം ഈ കലാകാരന്മാരെ സംബന്ധിച്ച് അവിടെ ഒരു പണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെ അവഗണനകളും മറ്റു കാര്യങ്ങളും ഒക്കെ നേരിടേണ്ട അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഈ അവസ്ഥകളിലൊക്കെ അവർ എന്താണ് ഈ അവർക്ക് ഉയരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെ പോയ അനവധി ജീവിതങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും മറ്റു കാര്യങ്ങൾ ഗ്രഹിക്കാനും നമുക്ക് കഴിയും അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പണം എന്ന് പറയുന്ന കാര്യമാണ് ഈ പണം എന്ന് പറയുന്ന സങ്കല്പങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലെ അനവധി ആശയങ്ങൾ ഗ്രഹിക്കാനും മറ്റും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ആയിട്ട് കഴിയും പിന്നീട് രണ്ടാമത്തെ ഒരു ആശയം എന്നു പറയുന്നത് വേർതിരിവുകളെ ഇപ്പോൾ ഇന്ത്യൻസ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ കലാകാരന്മാർക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പം നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതി വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് കറുത്തവൻ വെളുത്തവൻ ഇപ്പം സിനിമ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഈ സിനിമ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ മ്യൂസിക് നമ്മുടെ ഗായക സംഘങ്ങളുണ്ടല്ലോ അതൊരു കലാപരമാണ് ചിത്രരചനാ ഫീൽഡുകൾ അതുപോലെ തന്നെ അധ്യാപന രംഗങ്ങളിൽ ഏതൊരു തലമെടുത്ത് കഴിഞ്ഞാലും കലാകാരന്മാർക്ക് നിർണായകമായ പങ്ക് ഉളവാകണം ഈ അവസരങ്ങളിൽ ഒക്കെ എന്താണ് കറുത്തവൻ വെളുത്തവൻ എന്നുള്ള വിവേചനം കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനപ്പുറത്തേക്ക് ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ അവിടെ എന്താണ് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറയുന്ന ചിന്താഗതി പഴയ കാലഘട്ടങ്ങൾ തൊട്ടുതന്നെ കലാകാരന്മാർ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തപൂർണമായിട്ടുള്ള അവരുടെ അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കുവാനും ഈ കാര്യങ്ങളിലേക്ക് ആശയങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ജാതീയപരമായിട്ടുള്ള അയിത്തങ്ങൾ ഈ രീതികളൊക്കെ എന്താണ് നടന്മാരുടെ കഴിവുകൾക്ക് അതീതമായിട്ട് കാണുകയും അവരെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരികയും ചെയ്തു യഥാർത്ഥമായിട്ട് കഴിവുള്ള ആളുകൾ വരാതിരിക്കുകയും എന്നാൽ ഒരു കഴിവുമില്ല എന്നാൽ കുറച്ചൊക്കെ എന്തൊക്കെയോ കഴിവുകളുള്ള വ്യക്തികൾ ഈ സമൂഹത്തിലേക്ക് ഉയർന്ന് ഈ ജാതിപരമായിട്ടുള്ള ചിന്താഗതികളെ ഇതാണ് രണ്ടാമത്തെ ഒരു ചിന്താഗതി എന്ന് പറയുന്നതിനുള്ള ആശയം മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് എല്ലാ കലാകാരന്മാർക്കും അവരുടെ കലാപാരമ്പര്യം ഉണ്ടായിരിക്കണം എന്നില്ല പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ശ്രദ്ധ ഇന്ത്യൻ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാർ നേരിട്ടു കൊണ്ടിരിക്കുന്ന ഭീഷണിയിൽ മൂന്നാമത്തെ ഒരു ഘടകമാണ് പാരമ്പര്യം അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ നായകനാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ്റെ പിതാവാണ് നമ്മുടെ ഈ പത്മശ്രീ മമ്മൂട്ടി അപ്പോൾ അവിടെ ഒരു പാരമ്പര്യം ഉണ്ട് കാരണം തൻ്റെ ദുൽഖർ സൽമാൻ്റെ പിതാവ് ഒരു നടനാണ് അതുപോലെ തന്നെ അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഒരു നടനായിട്ട് മാറി അവിടെ ഒരു പാരമ്പര്യം ഉദിക്കുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ വേറൊരു ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഒരു മലയാളത്തിൽ ഇപ്പോൾ ഒരു ഉദിച്ചു വന്ന ഒരു നായകനാണ് ടോവിനോ തോമസ് പക്ഷേ ടോവിനോ തോമസിൻ്റെ പിതാവോ അല്ലെങ്കിൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ ആരും സിനിമ ഇൻഡസ്ട്രിയൽ അധികമായിട്ട് പ്രശോഭിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നിട്ട് അദ്ദേഹം കഴിവുകൾ കൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അപ്പോൾ പാരമ്പര്യം ഒരു തടസ്സമായിട്ട് നിലനിൽക്കുന്നുണ്ട് പൊതുവായിട്ട് പറയുകയാണ് അവർക്ക് ഭീഷണി നേരിട്ടു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മറിച്ച് ഒരു പാര്യം ഉള്ള പാരമ്പര്യമുള്ള ഒരു വ്യക്തിയുടെ ഇപ്പോൾ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ്റെ ചിത്രം വെള്ളിത്തിരയിലോ അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെയധികം വലുതാണ് അപ്പോൾ പാരമ്പര്യം എന്നു പറയുന്നത് കലാകാരന്മാരെ നേരിട്ടു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഭീഷണി പിന്നെ കലാപരമായിട്ടുള്ള ഗായക സംഘങ്ങളിലേക്ക് ഒക്കെ വരികയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കലാകാരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം യഥാർത്ഥ കഴിവുകളുള്ള വ്യക്തികൾ ഈ തെരുവിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു സങ്കല്പത്തിലേക്ക് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ടീച്ചർ ആക്കുന്ന രീതികളിലേക്കൊന്നും വരുന്നില്ല അപ്പോൾ ആ ഒരു സംഭവം പിന്നെ പ്രധാനപ്പെട്ട ഒരു അസ്ഥിരത സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കലാപരമായുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഏതൊരു വിദ്യാഭ്യാസം ആണെങ്കിലും അതിനെ വിദ്യാഭ്യാസത്തിന് അനുഷ്ഠിച്ച് കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകണം അപ്പോഴാണ് സമൂഹത്തിൽ അവരുടെ കലാകാരന്മാരുടെ സ്ഥാനങ്ങൾ എന്താണ് അവരുടെ പങ്കുകൾ എന്താണ് അതൊക്കെ മനസ്സിലാക്കാനും മറ്റ് കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് പോലെ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളും കലാകാരന്മാരുടെ അവസരങ്ങളെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് വഴിവയ്ക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ രീതികളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ കലാകാരന്മാർക്ക് ഉയരാനായിട്ട് കഴിയും കഴിയും പിന്നെ അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്നു പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ കോൺസ്റ്റപ്പിൻ്റെ ഇന്ത്യൻ സങ്കല്പത്തിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ നീങ്ങി രണ്ടായിരം കാലഘട്ടത്തിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ആ ചിന്തയിലേക്ക് വന്നാൽ മാത്രമാണ് കലാകാരന്മാരുടെ പ്രാധാന്യം എങ്ങനെയാണ് അല്ലെങ്കിൽ കലാകാരന്മാരുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് സമൂഹത്തെ മോടി പിടിപ്പിക്കുന്നതിനും ഘടകമായിട്ട് സഹവർത്തിക്കണം എന്ന് പറയുന്ന ആശയം മനസ്സിലാക്കുകയാണ് പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പം ആ രീതിയിലൂടെ മാത്രമേ എന്താണ് കലാകാരന്മാരുടെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കാനും അവരുടെ ആശയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ചെയ്യുക ഓരോ കലാകാരന്മാർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട് ഈ പലതരത്തിലുള്ള കഴിവുകളെ കഴിവുകളുള്ള വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കലാകാരൻ എന്ന് പറയുന്ന പേര് അത് നമ്മുടെ കുറച്ച് സിനിമയിലോ ചിത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ല ഒതുങ്ങി നിൽക്കുന്നതല്ല എല്ലാ മേഖലകളിലും കലാകാരന്മാരുണ്ട് അവരെ വാർത്തെടുക്കുക എന്ന് പറയുന്ന ദൗത്യം സമൂഹത്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഊന്നൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭാവനയും കൂടി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോഴാണ് കലാകാരന്മാർക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത് അപ്പം ഈ ഇത്തരത്തിലുള്ള കാരണങ്ങൾക്ക് എന്താണ് കലാകാരന്മാരുടെ അവസരങ്ങൾ നിഷേധിക്കുകയാണ് അവസരങ്ങൾ നിഷേധിക്കുകയല്ല വേണ്ടത് അവസരങ്ങൾ വളർത്തുകയാണ് വേണ്ടത് അങ്ങനെ കലാകാരന്മാരെ ഉന്നതിയിലേക്ക് നയിക്കാനാവും